ഞാൻ എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് ഒരു സോഫ വേടിച്ചു അത് കടയിൽ ചെന്നപ്പോൾ ആ കടയിലെ ഓണറ് പറഞ്ഞത് വീടിനനുയോജ്യമായതല്ല വാങ്ങേണ്ടത് അതിൻ്റെ ഭംഗി സൈസ് പ്രത്യേകിച്ച് ഇരിക്കാനായിട്ടുള്ള കംഫേർട്ട് ആണ് നോക്കേണ്ടത് എന്ന് അങ്ങേർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാ സോഫകൾ അവിടുത്തെ ഫർണിച്ചറിലെ എല്ലാ സോഫകളും തന്നെ കണ്ടു എനിക്കിഷ്ടപ്പെട്ടൊരു വീടിൻ്റെ സ്പേസിലൊതുങ്ങുന്ന ഒരു ചെറിയൊരു സോഫ ഞങ്ങൾ വേടിക്കാനാഗ്രഹിച്ചു വിലയും നോക്കി അതിൻ്റെ സൈസ് അത് ലിവിംഗ് റൂമിൻ്റെ എവിടെ ഇടണം എന്ന് ഞങ്ങൾ ചിന്തിച്ച് അത് സെറ്റ് ആക്കി അതിൻ്റെ ക്വാളിറ്റിയും കളർ കോഡും എല്ലാം നോക്കി അങ്ങനെ വീടിനനുയോജ്യമായതും അത് ഇരിക്കാനായിട്ട് കംഫേർട്ട് ആയ ഒരു സോഫ തന്നെ ഞങ്ങൾ വേടിച്ചു അത് ഞങ്ങൾക്ക് അവിടുത്ത ഡെലിവറി ബോയ് തന്നെ ഞങ്ങൾക്കത് വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് അത് വീട്ടിലിട്ട് തന്നു അതിൻ്റെ ക്വാളിറ്റിയും അതിരിക്കുന്ന സ്ഥലവും ഒക്കെ ഭയങ്കര കംഫേർട്ട് ആയിരുന്നു ഇരിക്കാനും നല്ല കംഫേർട്ട് ആയ രീതിയിലുള്ള സോഫ തന്നെയാണ് വേടിച്ചത് നമ്മളത് വീടിൻ്റെ ലിവിംഗ് റൂമിൽ ഒരു അരികത്തായിട്ടാണ് അതിട്ടിരിക്കുന്നത് എല്ലാവർക്കും വരുമ്പോൾ തന്നെ കാണാനും അവർക്ക് അവരുടെ ശ്രദ്ധയൊന്നാകർഷിക്കാനും വളരെ മനോഹരമായ രീതീയിൽ തന്നെ ഞങ്ങൾക്കത് ഒരു മൂലയിലത് വയ്ക്കാൻ സാധിച്ചു ആ ഞാൻ ഞാനതിലിരിക്കും ഇരിക്കാൻ തന്നെ നല്ല സുഖം നല്ല പഞ്ഞി പോലെ തോന്നും ഞാനതിലിരുന്ന് ഇരുന്നാണ് ടി വി കാണുന്നതും ചിലപ്പോൾ കിടയ്ക്കും അതിൽ അങ്ങനെ എനിക്കത് വളരെ കംഫേർട്ട് ആയിട്ട് തോന്നി വീടിന് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഒരു സൈഡിലത് എനിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ എല്ലാവർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സൈഡിൽ തന്നെ അതെനിക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു